നമ്മളുടെ വിളകൾ നമ്മൾ വീട്ടാവശ്യത്തിനുപയോഗിക്കും ബാക്കിയുള്ളത് നമ്മൾ വിൽക്കാറുണ്ട് അതിൽ മെയിനായിട്ടുള്ളത് വിവിധ എ ഏത്ത വാഴ വാഴക്കൃഷി ഏത്തൻ അങ്ങനെ തുളുനാട്ടു കദളി അങ്ങനെയൊക്കെ പലപല വെറൈറ്റിയിലുള്ള കൃഷികൾ നമ്മൾ ചെയ്തിട്ട് അതു നമ്മൾ നമ്മൾ ആവശ്യത്തിനെടുത്ത് ബാക്കി നമ്മൾ കൊടുക്കുന്നു പിന്നെ മുളക് കത്തിരിക്ക വെണ്ടയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളിൽ നമ്മൾ കൊടുക്കുന്നു കമ്പോളം നമ്മുടെ അടുത്തുള്ള കമ്പോളങ്ങളിൽ തന്നെയാണ് അതെല്ലാം കൊടുക്കാറ്